രാഷ്ട്രീയത്തെ പറ്റി പറയാനാണെങ്കിൽ എല്ലാ മതസ്ഥരും അവനവൻ്റെ ആൾക്കാരെ മാത്രം സ്വാധീനിക്കുകയും ചെയ്യും അല്ല ഒരു മതത്തെ ഒരു മതത്തിന് കാണത്തില്ലാത്ത ഇതാണ് മതങ്ങൾ തമ്മിലാണെങ്കിൽ പോലും എന്നും പ്രശ്നങ്ങളാണ് ഹിന്ദുക്കൾക്ക് മുസ്ലീങ്ങളെ കാണാൻ പറ്റത്തില്ല മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികളെ കാണാൻ പറ്റത്തില്ല എന്നുള്ള ഇതാണ് എന്നാൽ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഒരു പോലെയല്ല അവനവൻ്റെ അല്ല അവനവൻ്റെ ആൾക്കാർ ചെയ്യുന്നവരും ഉണ്ട് പിന്നെ അവരുടെ സ്വയം താൽപ്പര്യത്തിന് വേണ്ടിയിട്ട് മതത്തെ ഉപയോഗിക്കുന്നവരുമുണ്ട് അല്ല അല്ലാത്തവരും ഉണ്ട് പിന്നെ മതത്തെ വ്രണപ്പെടുത്തി കൊണ്ട് രാഷ്ട്രീയക്കാർ ഓരോ പ്രചരണങ്ങൾ നടത്താറുണ്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഇതുകൾ നമക്കറിയാവുന്നതാണല്ലോ പിന്നെ ഓരോ ഓരോ ഓരോ രാഷ്ട്രീയക്കാർക്കും ഓരോ ചെയ്തികളാണ് ചിലർ അവനവൻ്റെ മതത്തെ കുറ്റപ്പെടുത്തും ചിലർ അത് മറ്റുള്ള മതത്തെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കും

രാഷ്ട്രീയ കൊലപാതങ്ങളാണെങ്കിലും തമ്മിൽ തമ്മിൽ ആണെങ്കിലും മതത്തെ ഇത് വച്ചാണ് അവർ രാഷ്ട്രീയ ഇത് നടത്തുന്നതും പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഗുണ്ടായിസം ആയിട്ടാണെങ്കിലും മതത്തെ തന്നെ ഒരു മതത്തെ അടുത്ത മതക്കാർക്ക് കാണത്തില്ല പിന്നെ അവർ എന്ത് ചെയ്താലും